ഹലോ ആ ചേച്ചി ഞാൻ ഇന്നലെ വിളിച്ചതായിരുന്നേ ആ ഈ മറ്റേ വീട് അന്വേഷിച്ച് ശ്രീബുദ്ധ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങ് എന്ന് പറഞ്ഞില്ലായിരുന്നോ പ് ഇന്ന് വിളി അപ്പോൾ ഇന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു ആ ചേച്ചി എനിക്കാണെങ്കിൽ ഞാനും എന്റെയൊരു കൂട്ടുകാരിയും കൂടെയാണ് വരുന്നത് അവിടെ ഞങ്ങൾക്ക് മെ മെയിൻ ആയിട്ടും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെ ഒത്തിരി വലിയ മുറികളൊന്നും വേണമെന്നില്ല ഒരു രണ്ട് മുറി കൊച്ച് മുറി ആണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു വൃത്തിയുള്ള ബാത്റൂം പിന്നെ വെള്ളം വെള്ളത്തിന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് വേറെ എങ്ങും പോവാനുള്ള ഒരു വകുപ്പ് ഇല്ലാത്തതുകൊണ്ട് വെള്ളവും പിന്നെ നല്ലൊരു ബാത്റൂം അതിപ്പം അറ്റാച്ച്ഡ് വേണമെന്നൊന്നുമില്ല അവിടെ തന്നെ ഉള്ളതാണെങ്കിലും മതി പിന്നെ അടുക്കള അത്യാവശ്യം വലുപ്പം ഉള്ളത് കാരണം ഞങ്ങൾക്ക് ഫുഡ് ഒന്ന് ഉണ്ടാക്കണമല്ലോ അതും പിന്നെ ഒരു എന്താണ് നല്ല അടുത്ത് ഒരു കുടുമ്പങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരു ആറായിരം രൂപയാണ് ഇപ്പം വിചാരിക്കുന്നത് അവിടെ ഈ വാടക എത്രയൊക്കെ ആണവിടെ ഞങ്ങൾ ഞ ശനിയോ ഞായറോ വരാമെന്നാണ് വിചാരിക്കുന്നത് കോളേജിനടുത്ത് നിന്ന് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു ഒരുപാട് ദൂരം യാത്ര ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് കോളേജിൽ എത്താനുമൊക്കെ പറ്റുവാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു പക്ഷേ ഏഴായിരം ആ പക്ഷേ ഈ ബ ആറായിരം എന്നുള്ള പൈസയുടെ ആറായിരത്തി അഞ്ഞൂറാണെങ്കിൽ ആയാലും കുഴപ്പമില്ല ശരി ഏച്ചി ശരി ശരി ശരി